അ അത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നു ശകലം കൂടെ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്താം അത്രയെ ഉള്ളു ഇല്ല ഒന്ന് മതിയെന്നാൽ അപ്പുറവും ഇപ്പുറവും മാറിയൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടെ വില കുററച്ച് മേടിക്കാം സെൻ ആ സെൻറ്റിനൊരു രണ്ട് രൂപക്കൊക്കെ കിട്ടും വീട് വീട് വേണോ ആ ആ വീടും കൂടിയുള്ള വീടും കൂടി ഉള്ളതാണേൽ കിട്ടും വഴി സൈഡിൽ കിട്ടും വെള്ളം നിലവിലിപ്പം ഇല്ല അത് അത് ഉള്ള എന്തെങ്കിലും കുഴൽ കിണറ് പോലെ അടിക്കും അതല്ലെങ്കിൽ വഴി വിട്ടാണെങ്കിൽ വഴിവിട്ടാണെങ്കിൽ ഇച്ചിരി വില കുറച്ച് അത് വിലക്കുറവുണ്ട് വെള്ളം ഉള്ള സ്ഥലം ഈ വീടോട് കൂടി കിട്ടാനുണ്ട് ആ സൗകര്യം കുറവാണ് ഈ വഴി എന്ന് പറഞ്ഞാൽ മേയ്ൻ വഴിയല്ല ചെറിയ പോക്കറ്റ് റോഡൊണ്ട് ചെറിയ ആ ടാറിങ്ങ് ടാറിങ്ങ് ടാറിങ്ങ് റോഡാ മേയ്ൻ വഴിയിൽ കൂടെ പോകുന്ന വഴി സ്ഥലം സ്ഥലമൊരു പത്ത് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഈ വിലക്ക് ഇതിലും വിലക്കുറച്ച് കിട്ടും വീടുമുണ്ട് ഒരു വീടുമുണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം

ഈ വഴിയിൽ കൂടാകുമ്പോൾ ഒരു കിലോമീറ്റ്റ് വരും സാമാന്യം സാമാന്യം തെറ്റില്ലാത്ത ഒരു വീടാണ് കരണ്ട് എല്ലാവക സൗകര്യങ്ങളോട് കൂടിയതാണ് കോങ്ക്രീറ്റിട്ട റോഡ് ടാറിങ്ങ് റോഡ് തന്നെയാണ് കോങ്ക്രീറ്റ് റോഡാ മേയ്ൻ വഴിയിൽ നിന്ന് ഒരു പത്ത് ഇര്ന്നൂറ് മീറ്റ്റ് വിട്ടാണെന്ന് ഉള്ളതെ ഉള്ളു റെഡ് തന്നെയാണ് കോങ്ക്രീറ്റ് റോഡാ കോങ്ക്രീറ്റാ കോങ്ക്രീറ്റ് വീടാണ് ആ കുറച്ച് ഷീറ്റുമുണ്ട് കുറച്ച് ചേർത്ത് ഷീറ്റുമുണ്ട് ആ കുറച്ച് ഷീറ്റുമുണ്ട് ശ്യാമ് പർദയുണ്ട് വോ പേഴ്സ്ണലി നോക്കുന്ന ആ വില കൂടിയും കുറച്ച് ഇരുന്നൂറിന് കുറച്ച് അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് ഏലവും ഉണ്ട് വെള്ളവുമുണ്ട് ഇച്ചിരി എന്തോ ജാതി രണ്ട് എണ്ണമുണ്ട്

ഇരുപതും ആ വേറെ മാറ്റാനും വേറെ മാറിവരാനും വേറെ മാറി പത്ത് ലക്ഷം രൂപായ്ക്കോ എന്നാലും കിട്ടും പക്ഷേ അതിന് വഴി സൗകര്യം കുറവായിരുന്നു പന്ത്രണ്ട് രൂപ എടുക്കാൻ ഉണ്ടെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കൂടെ ആ വീടിൻറ്റെ മുറ്റത്ത് ആ സൗകര്യമുണ്ട് സൗകര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഷീറ്റിട്ടതാണ് കരണ്ടൊണ്ട് വെള്ളമുണ്ട് വെള്ളം പൈപ്പ് വെള്ളം കിട്ടുന്നതാണ് ആ പിന്നെ മെയ്ൻ മെയ്ൻ ഹൈ വേ റോഡീന്ന് ഒരു നൂറ് മീറ്റ്രേ ഉള്ളു തൊട്ടടുത്തായിട്ടൊരു പള്ളിയുണ്ട് അങ്ങനെയൊരു സ്ഥലം കൊടുക്കാനുണ്ട് പാത്തിക്കുടീലാണ് അത് പള്ളി അതിന്റെ തൊട്ട് ഫ്രെണ്ടിലാണ് പള്ളി ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ